ആ ഇത് പൂക്കടയല്ലേ ആ നമുക്ക് കോളേജിലേക്ക് കുറച്ച് പൂവ് ആവശ്യമുണ്ടായിരുന്നു നമുക്ക് ഓണപ്പരിപാടിക്ക് വേണ്ടിയിട്ടായിരുന്നു

ബഡ്ജറ്റ് ഒരു അയ്യായിരം രൂപയൊക്കെയുണ്ടാകും ആ നമുക്ക് കോളേജിലേക്ക് ഫുള്ളായിട്ടാണ് വേണ്ടത് അതുകൊണ്ടാണ്

ആ

ഇത് അവിടെയെത്തിച്ചു തരുമോ അല്ലെങ്കില് വന്നെടുക്കണമോ താമരയാണോ

ആ അത് ഇത് തിങ്കളാഴ്ചത്തേക്കുണ്ടാകുമോ അടുത്ത തിങ്കളാഴ്ചത്തേക്ക് തിങ്കളാഴ്ച രാവിലത്തേക്ക് വേണം നമുക്ക് എനിക്ക് രാവിലെ പോകുമ്പോള് കൊണ്ടുപോകാന് വേണ്ടിയിട്ടാണ് അല്ലെങ്കില് നിങ്ങളവിടെ എത്തിച്ചുതരുമോ കോളേജില് എത്തിച്ചുതരുമോ നമ്മുടെ മീനങ്ങാടി കോളേജിലേക്കാണ്

ആ അങ്ങനെയാണോയുള്ളത് ആ എൻ്റെ വീട് പനവേലിലാണ് അപ്പോള് ഞാൻ രാവിലെ വരുമ്പോള് എടുത്തുകൊള്ളാം

എല്ലാമൊരു പത്ത് പത്ത് കിലോ പന്ത്രണ്ട് കിലോയൊക്കെ വെച്ചുകൊള്ളൂ ആ എന്നാല് എന്നാല് അങ്ങനെ എടുത്തുകൊള്ളൂ ആ ഓ ഈ നമ്പറിൽ വിളിച്ചാല് കിട്ടും ആ താമര വെച്ചുകൊള്ളൂ താമര എന്നാല് മൂന്നാലെണ്ണം വെച്ചുകൊള്ളൂ ആ ഓക്കേ